ഹലോ ആ സാറേ നമ്മൾ എറണാംകുളത്ത് നിന്ന് വിളിക്കുന്നതായിരുന്നേ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് വരുന്നുണ്ടേ വയനാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടത്തെ ഫുഡ് ട്രഡീഷണൽ ഫുഡ്സ് ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരുന്നേ അങ്ങനത്തെ ഒക്കെ ആണല്ലേ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആ നമുക്ക് ഒരു അമ്പത് പേരുടെ പ്രോഗ്രാം ആണ് അപ്പോൾ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ അവൈലബിൾ ആണോ ആണല്ലേ നമുക്ക് അപ്പോൾ നമ്മൾ ഒരു ടു ഡേയ്സ് അവിടെ സ്റ്റേ ഉണ്ടാവും ആ രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും റൂംസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരില്ലേ ആ പിന്നെ നമുക്ക് പുറത്ത് വല്ല ഔട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടാക്സിയോ ക്യാബോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുമോ പറ്റുമല്ലേ ആ അപ്പോൾ നമുക്ക് ഫുഡ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇതൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ഫാസ്റ്റിന് വല്ല വെജിറ്റബിൾ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ

ആ നമുക്ക് രാവിലെ എന്തെങ്കിലും വെജിറ്റബിൾ കറി മതി ഉച്ചയ്ക്ക് എന്തെങ്കിലും നോൺ വെജ്ജ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നൈറ്റ് പിന്നെ എന്തായാലും കുഴപ്പമില്ല ആ നമുക്ക് ഇപ്പോൾ ഏകദേശം ഈ കപ്പയും ബീഫ് ഒക്കെ ആണെങ്കിൽ എത്ര രൂപ ബഡ്ജറ്റ് ആണ് വരുന്നത്

ചെയ്ത് തരാൻ പറ്റുവല്ലേ ആ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് സാറിനെ കോൺടാക്ട് ചെയ്തേക്കാം പിന്നെ നമ്മൾ വരുന്നതിന് രണ്ട് ദിവസം മുൻപ് നിങ്ങളെ വിളിക്കാം ഞങ്ങൾ ചിലപ്പോൾ കോഴിക്കോടായിരിക്കും വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ ട്രെയിൻ ആ അറേഞ്ച് ചെയ്യേണ്ടി വരും നമ്മൾ ട്രെയിൻ ആയിരിക്കും വരിക അപ്പോൾ അങ്ങോട്ട് എത്താൻ എന്തെങ്കിലും ക്യാബോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുവോ ആ ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും ബുക്കിംഗ് എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും പേ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ ചെയ്താൽ മതിയല്ലേ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും കൺഫോം ടു വീക്കിനുള്ളിലേ എത്തുള്ളൂ അപ്പോൾ ഞാൻ സാറിനെ എന്തായാലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യം നേരിട്ട് സംസാരിക്കാം ഓക്കെ സാർ താങ്ക് യൂ ഓക്കെ